അതേല്ലോ

എത്ര ദിവസത്തെയാണ് പറഞ്ഞത് പാക്കേജ് മൂന്ന് ദൂസത്തെയാണ് ഇവിടെ പാക്കേജ് വരുന്നത് മൂന്ന് ദിവസത്തെയും ഏഴ് ദിവസത്തെയും പത്ത് ദിവസത്തെയാണ് വരുന്നത് അപ്പം എത്ര പേർ ഉണ്ടെന്നാണ് പറഞ്ഞ് വരുന്നത് നൂറ് ആവുമ്പോൾ ഒന്നരയൊക്കെ വരും കേട്ടോ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം വരും ഫുഡ്ഡും വരുന്നുണ്ടല്ലോ ആ അത് കുറയ്ക്കാം നൂറ് പേരുള്ളത് കൊണ്ടാണ് ഏ ആ ഫുഡ്ഡും വരുന്നുണ്ടല്ലോ അക്കോമഡേഷൻ മാത്രം അല്ലല്ലോ ഫുഡ്ഡും ഉണ്ടല്ലോ ഫുഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാം ഉണ്ടാവും ഫുഡ്ഡും അക്കോമഡേഷനും അത്രയും പേർക്ക് എല്ലാ നേരവും മൂന്ന് നേരവും ഉണ്ടാവും

നിങ്ങൾ നിങ്ങൾ എന്താണ് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എ ഒരു ചാർട്ട് പോലെ ആക്കുക നിങ്ങൾക്ക് ഇപ്പം ഡിന്നറിന് ഇപ്പം ഇപ്പം എന്താണ് വേണ്ടത് പിടിയും കോഴിയാണ് വേണമെങ്കിൽ നിങ്ങൾ അതൊരു ചാർട്ട് പോലെ ഓരോ ദിവസം നമുക്ക് മാറ്റി മാറ്റി ഇതാക്കാമല്ലോ ട്രഡീഷണൽ ആയിട്ട് കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒക്കെ ചെയ്ത് തരാൻ പറ്റും ഓക്കെ ഞാൻ ഇവിടെയുള്ള ഫുഡിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പിന്നെ അതിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ ഉള്ളത് എന്ന് ഏതൊക്കെ ദിവസം എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ പ്രിപെയർ ചെയ്യാൻ പറ്റും ഓഡിറ്റോറിയം ഉണ്ട് ആ അയി ഡെക്കറേഷനും കാര്യങ്ങളും പിന്നെ കേക്ക് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് തന്നെ ഇതാക്കാം ഏത് കേക്ക് ആണ് എത്ര എത്ര കിലോ വേണം എങ്ങനെയാണ് അതിൻ്റെ ഇത് ഓരോരോ ഇത് ഉണ്ടാവുമല്ലോ

നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഐഡിയാസ് പറഞ്ഞാൽ മതി ഞങ്ങൾ തന്നെ ഇവിടെ കുക്ക് അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇവിടെ ഹോ പിന്നെ കേക്ക് മേക്കിങ് ഒക്കെ ഉണ്ട് പ്രിപേയർ ചെയ്ത് തരും ഓക്കെ ഓക്കെ വ ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി അതിന് അനുസരിച്ച് നമുക്ക് അതിന് ഉള്ള വേണ്ട ഇത് കാര്യങ്ങൾ ചെയ്യാം എന്തായാലും ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങൾ ഇഷ്ടമുള്ള ട്രഡീഷണൽ ഫുഡ്സ് എതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ താങ്ക് യൂ